ഹലോ ഇത് വയനാട്ടിലെ ഫോറസ്റ്റ് ഇതല്ലേ ഗൈഡല്ലേ ഞാൻ തിരുവനന്തപുരത്തുന്ന് വിളിക്കുന്നതായിരുന്നു ഞങ്ങൾ വയനാട് കറങ്ങാനായിട്ട് കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ല സ്ഥലങ്ങളും ഫോറസ്റ്റ് ഒക്കെയുള്ള ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തരുമോ ആ ആ ആ എന്നാൽ രാവിലെ ഏകദേശം ആ രാവിലെയാണ് ഏകദേശം നമ്മൾ എത്തുക അവിടെയ്ക്ക് ആ

ആ ഇരുന്നൂറാ ഒരാൾക്ക് ഞങ്ങൾ ഒരു അഞ്ച് ആറ് പേരുണ്ട് ആറ് പേരിൻ്റെ അടുത്തുണ്ടാകും ആ ചിലപ്പം അതിൽ കൂടും ആറ് ഏഴ് പേര്

ആ ആ നേരത്തെ ബുക്ക് ചെയ്യാനാണോ ആ

ആ ഓക്കേ ഓക്കേ ആ അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിൽ പോണെങ്കിലോ ഒരു ഡേ തന്നെ പറ്റുമോ അത് എല്ലാ സ്ഥലങ്ങളിലും എത്ര സ്ഥലത്ത് പോകാൻ പറ്റും ഉച്ച വരെയാണോ

ആ തോൽപ്പട്ടിയിലുണ്ടോ ആ മുത്തങ്ങ ആ

ആ

ആ ഇതിൽ അത്യാവശ്യം നല്ല സ്ഥലങ്ങളിൽ ഒരു മൂന്ന് നാല് സ്ഥലത്ത് പോയാൽ മതി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ആ രണ്ട് ദിവസത്തേക്ക്

ആ ഇന്നാ

ആ ഞാൻ എന്നാൽ ആ പേയ്മെൻറ്റും എത്ര പേര് ഉണ്ടെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇന്ന് തന്നെ അറിയിക്കാം

ആ ഈ നമ്പറിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അറിയിക്കാം ആ ഓക്കേ